എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലമാണ് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നിരവധി ഓർമ്മകൾ അതായത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധി ഓർമ്മകൾ ഉണ്ട് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ അമ്പലങ്ങളിൽ ഉത്സവം കാണാൻ അതായത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് വരുന്ന അമ്പലങ്ങളിൽ വരുന്ന ഉത്സവങ്ങൾ കാണാൻ പോവുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോവുകയും ഞങ്ങൾ കയ്യിൽ കരുതിയിരിക്കുന്ന കാശ് വെച്ച് ബലൂൺ വാങ്ങും കപ്പലണ്ടി വാങ്ങും ഐസ്ക്രീം വാങ്ങി കഴിക്കും കോലുമിഠായി വാങ്ങി കഴിക്കും തിരികെ വരുന്ന വഴിയിൽ വഴിയരികിൽ നിൽക്കുന്ന തൊട്ടാവാടി മുള്ളുകൾ തട്ടി ഞങ്ങളുടെ ബലൂൺ എല്ലാം പൊട്ടിപ്പോവും ഇതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതേപോലെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു വലിയ കുളമുണ്ട് ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് കുളത്തിൽ കുളിക്കാൻ പോവുകയും കുളിച്ചതിന് ശേഷം തോർത്ത് വിരിച്ച് അവിടെനിന്ന് മാനത്ത് കന്നി എന്ന് പറയുന്ന ഒരു മീനുണ്ട് ആ മീനിനെ പിടിക്കുകയും ചെറിയ ചെറിയ മഗ്ഗുകളിൽ ആക്കിയിട്ട് അതിനെ വീട്ടിൽ കൊണ്ട് വരികയും വീട്ടിൽ എത്തുമ്പോഴേക്കും അത് മരിച്ച് പോവും അതിന് നമ്മൾ വീട്ടുകാരിൽനിന്ന് അതിന് അടി കിട്ടും അതേപോലെ നമ്മുടെ ഓണത്തിന് ഓണത്തിന് പൂക്കളം ഇടാനായിട്ട് പൂക്കൾ ശേഖരിക്കുന്നതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തരും ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഓരോരുത്തരും ഓരോ കളർ പൂക്കളായിരിക്കും ശേഖരിക്കുന്നത് അതേപോലെ നമ്മൾ പൂക്കളം ഇടുന്നത് ഒരു മത്സരം ആയിരിക്കും മത്സരത്തിൽ ജയിക്കുന്നവർക്ക് പ്രത്യേകം സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ഊഞ്ഞാലാട്ടം വിഷുവിന് നമ്മള് കശുമാങ്ങ അതായത് കശുമാങ്ങ മാങ്ങ ചക്ക ഇതെല്ലാം നമ്മൾ അടുത്തുള്ള മരത്തിൽ നിന്ന് പറിക്കുന്നതും ഇതൊന്നും എനിക്ക് ഒരിക്കലും എൻ്റെ മറക്കാൻ പറ്റാത്ത ഓരോരോ കുട്ടിക്കാലത്ത് വരുന്ന അനുഭവങ്ങളാണ് എന്ത് കൊണ്ടാണ് കുട്ടിക്കാലത്ത് വരുന്ന ഈ അനുഭവങ്ങൾ എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇനി അത് ഒരിക്കലും എനിക്ക് തിരിച്ച് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓരോ അനുഭവങ്ങളും എനിക്ക് സവിശേഷമാവുന്നത്